ഹലോ ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതെ അതെ അതെ ആ സ്വപ്ന കെ എന്നു പറഞ്ഞിട്ടായിരുന്നു ഞാൻ കോഴിക്കോടുനിന്ന് എറണാകുളത്തേക്കായിരുന്നു ക്യാബ് ബുക്ക് ചെയ്തത് അപ്പം ചില സാഹചര്യങ്ങളിലാലിട്ട് എനിക്ക് അങ്ങോട്ട് പോവാനായിട്ട് പറ്റുന്നില്ല പറ്റുന്നില്ല എന്നല്ല പോവാനായിട്ട് പോവൻ ചില കാരണങ്ങളാൽ എനിക്ക് ചില കാരണം മീൻസ് എൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ പോവാൻ പോവാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ എനിക്ക് പോവാൻ പറ്റില്ല അപ്പം നിങ്ങൾ അതിൻ്റെ റീഫണ്ട് തരുമോ ഇല്ലയോ എന്നു അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ റീഫണ്ട് തരുമല്ലേ ആ ആ ഓക്കേ അത് ഒന്ന് റീഫണ്ട് ഒന്ന് തരണം ഞാൻ അഡ്വാൻസ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാബിനുവേണ്ടി അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്തത് അത് ആ ക്യാഷ് തന്നാൽമതി ഒരു പിന്നെ ആയിരം രൂപയായിരുന്നു അഡ്വാൻസ് ചെയ്തത് ആ അപ്പോൾ ഒരു അടുത്താഴ്ചയൊക്കെ ആവുമ്പോഴത്തേക്കും വേണ്ടിയായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ വേണമെങ്കിൽ ഇനി ഒന്നുകൂടി ബുക്ക് ചെയ്യാം ഇപ്പം എന്തായാലും അത് ക്യാൻസൽ ചെയ്തിട്ടൊന്ന് റീഫണ്ട് ചെയ്യണേ